ഞങ്ങള് ചെറുപ്പത്തില് കമ്പനി കൂടി പുഴയിൽ ചാടാൻ വേണ്ടിയിട്ട് പോവും പോക്കൊക്കെ വളരെ രസവാണ് പോകുന്ന വഴി അടിച്ച് പൊളിച്ച് പോകുന്നു വെള്ളത്തിൽ ചാടുന്നു നീന്തുന്നു വിവിധമായ അഭ്യാസങ്ങള് വെള്ളത്തിൽ കാണിക്കുന്നു വള്ളത്തെ കയറി വെള്ളത്തിലോട്ട് ഇറങ്ങി പോകുന്നു ഇടയ്ക്ക് വച്ച് ചാടുന്നു എന്നിട്ട് ആരാണ് എത്രയും പെട്ടെന്ന് ഇക്കരെ എത്തുന്നത് ഇല്ലെങ്കിൽ കൂടുതല് ദൂരം നീന്തുന്നത് എന്നൊക്കെ ചെറുപ്പത്തിലെ രസകരമായൊരു ഓർമ്മയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒ ഒരു ഒരാള് നടുവിലായിട്ട് വള്ളത്തെ പോവാണ് വള്ളത്തെ പോയി ഏറെക്കുറെ ഒരു നടുഭാഗം ചെന്നപ്പോൾ ഇവൻ തിരിച്ച് കര എത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് വള്ളത്തിൽ നിന്ന് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ചാടി ഇവൻ നീന്തലോ നീന്തല് കൈയിട്ടടിക്കുന്നു കാലിട്ടടിക്കുന്നു ഇടയ്ക്ക് ഇവന് ഉദ്ദേശിച്ച രീതിയിൽ ഇക്കരെ എത്താനായിട്ട് പറ്റിയില്ല വെള്ളത്തിൽ കിടന്ന് ഓടി വായോ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു കുട്ടത്തിലുള്ളര് വള്ളവായിട്ട് ചെന്നു ഇതൊക്കെ വളരെ രസകരമായ അനുഭവമാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് പിന്നെ പഠിച്ച് കൊണ്ടിരുന്ന കാലഘട്ടത്തില് വിവിധങ്ങളായ അഭ്യാസങ്ങള് ഇറക്കും

ഇലയോ ഇല്ലേ ഒര് കമ്പോ അടയാളം വെച്ചിട്ട് ഒരു കാല് നിലത്ത് കുത്തിയിട്ട് മറ്റേ കാല് പോക്കി ഇലയിൽ അടിക്കുന്ന അടിക്കുന്നു നിലത്ത് കുത്തിയ കാല് പറിഞ്ഞ് തലയും തല്ലി താഴ വീഴുന്നു ഇതൊക്കെ ഭയങ്കര രസമുള്ള ഓർമകളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് വിവിധങ്ങളായ കളികള്

സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു പിന്നെ ഞാനിപ്പഴ് എനിക്കെപ്പഴും ചിരിക്കുന്ന ഒരു കാര്യവുണ്ട് എനിക്കൊരു നായ്ക്കുട്ടിയുണ്ട് ലോറാന്നാണ് പേര് അവളുടെ ഓരോ വികൃതികള് കാണുമ്പള് അഴിച്ച് വിടും ഭയങ്കര സ്നേഹമാണെന്നേ ഭയങ്കര താല്പര്യവാണ് ഭയങ്കര അനുസരണയാണ് ഞങ്ങള് മിക്കപ്പോഴും അഴിച്ച് വിട്ട് നടക്കാനൊക്കെ പോകും അപ്പം ഇവളുടെ ആ തലവെട്ടിച്ചുള്ള ഓരോ കുസൃതികളുണ്ട് അവളുടെ കുണുക്കവും ഇതൊക്കെ എന്ന പലപ്പഴും ഹരംകൊള്ളിക്കാറുണ്ട് ചിരിപ്പിക്കാറുണ്ട് അവളുടെ ആ കുണുങ്ങിയുള്ള പോക്കും നമ്മോട് കാണിക്കുന്ന ബിഹേവ് ആ സ്നേഹവും ഇതെല്ലാം കാണുമ്പഴ്

രസകരമായ ഒരു അനുഭവമാണ് വണ്ടിയുണ്ടെണ്ടെങ്കിൽ പോലും ഞങ്ങളിങ്ങനെ തിയേറ്ററിലോട്ട് നടന്ന് പോകും

തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ കിലോമീറ്റർ ദൂരത്ത് ചെന്ന് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ദൂരം ഞങ്ങള് പിന്നേയും നടക്കും അതൊക്കെ ഭയങ്കര സന്തോഷവും ഉള്ള അനുഭവങ്ങളാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണേലും കിളി കിളി തട്ടുകളി അങ്ങനെയക്കെ പറഞ്ഞുകൊണ്ടുള്ള കളികളും ആ ഓർമ്മകള് ആ സന്തോഷങ്ങള് രസമുള്ള കാര്യമാണ് ഒരു പ്രാവശ്യം ഞാൻ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് പ്ലാവിൻറ്റ മുകളിൽ കയറി ചക്ക താഴോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ താഴെ വന്നു കണ്ട് നിന്നവർ ചോദിച്ചു നീ ചക്കപ്പറിക്കാൻ കേറിയതാണോ അതേപോലെ പ്ലാവിൽ കയറിയിട്ട് പ്ലാവിൽ നിന്ന് ചാടാൻ കയറിയതാണോ അമ്മാതിരിയുള്ള ഓർമ്മങ്ങളൊക്കെ ചിരി ഉണർത്തുന്നതാണ് പലപ്പോഴും രസകരമായ അനുഭവങ്ങള് യാത്ര പോകുമ്പഴ് പിക്നിക്കിന് പോകുമ്പോഴ് വിവിധങ്ങളായ കളി ചിരിയും സംസാരങ്ങളും കമ്പനി കൂടിയിട്ട് അതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ് എത്ര എത്ര അനുഭവങ്ങള് തമാശകൾ ചിരിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഒക്കെ ചിലതെല്ലാം ഓർത്ത് നമ്മള് ചിലപ്പം തന്നെ ഇരുന്ന് ചിരിക്കും ഈ ചെറുപ്പത്തിലുള്ള ഓരോ വികൃതികള് കമ്പനിക്കാര് കൂടി ഉള്ള പോക്കും സംസാരങ്ങളും എല്ലാം ഓർക്കുമ്പഴ് തന്നെ ഇരിക്കുമ്പോൾ ഓർത്തു ചിരിക്കുന്ന ഒത്തിരി ഒത്തിരി അനുഭവങ്ങള് ഉണ്ട് അങ്ങനെ നിരന്തരം നമ്മള് ചിരിച്ചു കൊണ്ടിരിക്കുകയല്ലെ വിവിധങ്ങളായ കോമടികള് ഇതെല്ലാം കാണുമ്പം ചിരിക്കും ആ അങ്ങനെ ഒരു ഒരു നൂറുകൂട്ടം തമാശകളുണ്ട് വാക്കിലും സംസാരത്തിലുവൊക്കെ ചിരിയും തമാശയും കളികളും